മതപരമായ അന്ധവിശ്വാസത്തെപ്പറ്റി പല കാര്യങ്ങള് പറയാനുണ്ട് ജാതകം നോക്കല് എന്ന് പറഞ്ഞ് ജാതകം നോക്കി വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നു ആ ജാതകം എങ്ങനെയാണെന്ന് ആര്ക്കറിയില്ല ആ ജാതകം നല്ലതാണെന്നും പൊരുത്തമാണെന്നും പറഞ്ഞ് കല്യാണം കഴിക്കും അത് കഴിയുമ്പോള് പ്രശ്നങ്ങള് വരുമ്പോള് എന്ത് ചെയ്യാന് പറ്റും ജാതകപ്പൊരുത്തം ഇല്ലായെന്ന് പറഞ്ഞാല് നടക്കുന്ന കാര്യമാണോ അത് നമ്മുടെ മതപരമായ അന്ധവിശ്വാസങ്ങളാണ് പൊരുത്തം നോക്കല് ചൊവ്വാദോഷമുള്ളവരെ ചെവ്വാദോഷമുള്ളവരെ കൊണ്ടേ കെട്ടിക്കത്തുളളൂ അല്ലാത്തവരെ കൊണ്ട് കെട്ടിക്കത്തില്ല അതും മതപരമായ അന്ധവിശ്വാസമാണ് ആ അന്ധവിശ്വാസത്തെ ഇന്നും പല ജനങ്ങളും കൊണ്ടുനടക്കുകയാണ് അത് തെറ്റാണെന്നുള്ള ബോധ്യം അവര്ക്കില്ലാതെ അത് പിന്തുടര്ന്നുകൊണ്ട് ജീവിക്കുന്നവരാണ് മിക്ക ജനങ്ങളും അത് പൊരുത്തമില്ലാതെ മാനസ്സികമായ രോഗങ്ങളുള്ളവരെ മന്ത് അവര്ക്ക് മന്ത്രവാതം ചെയ്ത് അവര്ക്ക് കൂടോത്രവാർണ് മറ്റ് രോഗങ്ങളാണെന്ന് ധരിപ്പിച്ച് വീണ്ടും വീണ്ടും അവരെ രോഗികളാക്കി മാറ്റുന്നതാണ് ഈ ഇന്ന് നമ്മുടെ ഈ ലോകത്തിലുള്ള ജനങ്ങളുടെ അന്ധവിശ്വാസം വിശുക്കള് വിശു വിശുജ് അങ്ങനെ പല രീതീലും ജനങ്ങള് മറ്റുള്ളവരെ വേദനിപ്പിച്ചും അന്ധവിശ്വാസം അന്ധവിശ്വാസികളാക്കി അന്ധതയിലൂടെ ജീവിപ്പിക്കുന്ന ഒരു കൂട്ടം ജനങ്ങള് ഇന്ന് നമ്മളുടെ രാജ്യങ്ങളില് കുടിയിരിക്കുകയാണ് ആയില്യമുള്ളവരെ കണ്ടാല് എതിര് വീട്ടുകാർ അവരെ കണ്ട ഉടനെ കതകടച്ച് മാറും ആ ആയില്യക്കാരെ നോക്കിയാല് നമുക്ക് ദോഷമാണെന്നുള്ള ആ ആ അന്ധവിശ്വാസമായ ചിന്തകള് അത് അവരെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോള് അവർ തന്നെ അറിയാതെ തെറ്റായ ചിന്തയിലേക്ക് അവർ പോകുകയാണ് അങ്ങനെ അന്ധ വിശ്വാസത്തില് ആഴ്ന്നുപോകുന്ന കുറേ ജനങ്ങളുണ്ട് വെള്ളിയാഴ്ച്ച ദിവസങ്ങളായാല് കൊടുക്കല് വാങ്ങല് അവർ ചെയ്യുകയില്ല വെള്ളിയാഴ്ച്ച സന്ധ്യസമയത്ത് മരിച്ചു കിടക്കുന്നെന്ന് പറഞ്ഞാല് ഒരു മനുഷ്യന് ഒരു സഹായങ്ങള് ആരും ചെയ്യുകയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങലും കൊടുക്കലും ചെയ്യത്തില്ല കൂടോത്രം മന്ത്രവാതം ഇങ്ങനെ പല ചിന്തകളുമായിട്ട് ഓരോ ഒരുകൂട്ടം ജനങ്ങള് അങ്ങനെ മറ്റുള്ളവരെ ധരിപ്പിച്ച് കൊണ്ടുജീവിക്കുന്ന ഈ ലോകത്ത് കഴിഞ്ഞ കാലങ്ങളില് പണ്ടത്തെ മനുഷ്യരാണ് ഈ മതപരമായ അന്ധവിശ്വാസങ്ങള് അവരുടെ ഹൃദയങ്ങളില് വെച്ചുകൊണ്ട് നടന്നത് ആ ചിന്ത തന്നെ ഇപ്പോള് കുറച്ച് പേര്ക്കതുണ്ട് കുറച്ച് പേര്ക്കതില്ല ആ ചിന്തകളിലൂടെ ജീവിച്ച് നമ്മുടെ മതത്തിനെയും നമ്മുടെ രാജ്യത്തേയും താഴ്ത്തിക്കൊണ്ട് ജീവിക്കുന്ന കുറേ ജനങ്ങള് ഈ രാജ്യത്തുണ്ട് എന്നാല് ഇന്ന് നമ്മള് ആ അങ്ങനെ ഉള്ള അന്ധവിശ്വാസത്തിൽ അടിമപ്പെട്ട് പോകാതെ ജാതി മതമെന്നുള്ള ഭേദമില്ലാതെ ആ അന്ധതയില് നിന്നും വ്യതിചലിച്ച് ജീവിക്കുവാന് ഓരോ ജനങ്ങളും ആ അന്ധവിശ്വാസത്തില് നിന്ന് കടന്നുവരുവാന് വേണ്ട മാര്ഗ്ഗങ്ങള് കണ്ടെത്തുവാന് നമ്മള് ഓരോ ജനങ്ങളെയും പ്രേരിപ്പിക്കേണ്ടത് നമ്മുടെ കടമകളാണ് അതിനെ നമ്മള് കൈകാര്യം ചെയ്യേണ്ടത് തെറ്റായ ചിന്തയില് ജീവിക്കുന്നവരെ നേര്വഴിയിലേക്ക് കൊണ്ടുവരുവാന് വേണ്ട എല്ലാ കരുത്തും നമ്മള് ഓരോരുത്തർ ചെയ്യണം അല്ലാതെ മാനസികമായ വെല്ലുവിളിയോടെ രോഗാവസ്ഥയില് കഴിയുന്ന മക്കളെ അവരെ പിശാചിന്റെ അടിമകളാണ് അന്ധവിശ്വാസികളാണ് അങ്ങനെ ഉള്ള ചിന്തകളില് ആവരെ വീണ്ടും വീണ്ടും അന്ധകാരത്തിലേക്ക് ആഴ്ത്തി വിടാതെ അവരെ നേര്വഴിയിലേക്ക് കാട്ടി ആ രോഗാവസ്ഥകളിൽ നിന്ന് അവര്ക്ക് വിടുതല നല്കി വിടുതല നല്കുവാന് വേണ്ടി നമ്മള് ഡോക്ടര്മാരെ കണ്ടോ മരുന്ന് വാങ്ങിയോ അവരെ ചികിത്സിച്ച് മാറ്റുവാന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം പിശാച് കൂടി കഴിയുന്നവരെ അന്ധവിശ്വസികളാണെന്ന് പറഞ്ഞ് അവരെയും ആ അന്ധവിശ്വാസത്തിലേക്ക് ആഴ്ത്തിക്കളയും ആ പിശാച് കൂടുന്നവർ അന്ധവിശ്വാസികളല്ല അവർ രോഗികളാണ് അവരുടെ രോഗമെന്താണെന്ന് കണ്ടു പിടിക്കാതെയാണ് അവരെയും വീണ്ടും അന്ധവിശ്വാസത്തിലേക്ക് ആള്ക്കാർ വിട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ ചെയ്യാതെ മതപരമായ രീതിയില് അന്ധവിശ്വാസികളാകാതെ നേര്വഴിയിൽ കൂടെ ജീവിക്കുവാന് വേണ്ട എല്ലാ എല്ലാ കരുത്തും ഏകിക്കൊണ്ട് അന്ധവിശ്വാസത്തിലേക്ക് കടന്നുപോകാതെ നമ്മൾ ജിവിക്കുവാന് നോക്കണം